നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ അതുപോലെത്തന്നെ ചിലപ്പോൾ പറയുക എന്നൊക്കെയുള്ള വാക്കുകൾ പിന്നെ അമ്മ അച്ഛൻ അങ്ങനെയൊക്കെയുള്ള വാക്കുകളല്ലേ നമ്മൾ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കാറ് അങ്ങനെയുള്ള വാക്കുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെയുള്ള വാക്കുകൾ എന്താ വച്ചാൽ മലയാള ഭാഷയിലത്തെ മലയാളത്തിൽ തന്നെ ഒരുപാട് വാക്കുകൾ ഉണ്ടല്ലോ പിന്നെന്താ എപ്പോഴാ എപ്പോഴാ വരിക അങ്ങനത്തെ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്